എല്ലാ ആളുകളെയും കായിക മേഖലയിൽ ഉൾപ്പെടുത്തുകയും ലിംഗ സമത്വം ഉറപ്പു വരുത്തുക എന്നത് ശ്രമകരമായ ഒരു കാര്യമാണ് അത് എല്ലായിടത്തും പ്രാക്ടിക്കൽ ആവണം എന്നില്ല എല്ലായിടത്തും അതിനുള്ള ആ സിസ്റ്റം ഉണ്ടാവുക അതിനുള്ള നിയമങ്ങൾ കർശനമാക്കുക ഇതൊന്നും നടക്കണമെന്നൊന്നുമില്ല എൻ്റെ നാട്ടിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ കളിക്കുന്നത് കായിക മേഖലയിൽ ഉൾപ്പെടുന്നത് പള്ളിയോടു ചേർന്നുള്ള ഗ്രൗണ്ടിലാണ് അവിടെ ഞങ്ങൾ ഇത് ഉറപ്പു വരുത്താൻ ലിംഗ സമത്വം മിക്ക ടീമുകളും കളിക്കുന്നതിനു വേണ്ടി ഞങൾ ഒരു ദിവസം ഒരു ഗെയിമാണ് കളിക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം ഞങ്ങൾ വേറെ ഒരു ഗെയിം കളിക്കും അല്ലെങ്കിൽ പകുതി സമയം ഒരു ഗെയിം കളിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ഒരു ആദ്യത്തെ ഒരു മണിക്കൂർ ഫുട്ബോൾ കളിച്ചിട്ട് പിന്നെ അടുത്ത ഒരു മണിക്കൂറ് ക്രിക്കറ്റ് കളിക്കും അങ്ങനൊക്കെയാണ് ഞങ്ങൾ അവിടെ കളിക്കുന്നത് പിന്നെ ലിംഗസമത്വം ഉറപ്പു വരുത്താൻ വേണ്ടി പെൺകുട്ടികളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഗെയിംസ് കളിക്കും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം സ്ഥലങ്ങൾ സജ്ജീകരിച്ചു കൊടുക്കും അതിനുള്ള ബാക്കിയുള്ള സ്ഥലത്ത് ഞങൾ കളിക്കും അങ്ങയാണ് ഞങ്ങൾ കളിക്കുന്നത് ആ പിന്നെ അവർക്ക് കളിക്കാൻ പറ്റുന്ന ഷട്ടിലിനുള്ള കോർക്ക് ബാറ്റ് ഇതെല്ലാം യുവജനങ്ങളുടെ പേരിൽ തന്നെ ഞങൾ സംഭാവന ചെയ്യും അങ്ങനെ ഒക്കെ ഇതെല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമല്ല എല്ലായിടത്തെയും ആളുകൾ അതിന് സമ്മതിക്കണമെന്നില്ല അവിടെ സ്ഥലം വേണമെന്നില്ല അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാവുന്ന ഒരു അവസ്ഥയാണിത് എങ്കിലും സമത്വത്തെ മുൻനിർത്തി നമ്മൾ ഇതെല്ലാം ഇവിടെ സജ്ജീകരിക്കുന്നുണ്ട് ആ അവർക്ക് വേണ്ട നെസസറി നീഡ്സ് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്